ടൂറിസ്റ്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പലതുണ്ട് കേരളത്തിൽ കേരളത്തിലെ പറഞ്ഞൂ കഴിഞ്ഞാൽ കുമരകം തിരുവനന്തപുരം അതുകൂടാതെ ഹിൽ ഏരിയയിൽ പോകണമെങ്കിൽ വയനാട് മാനന്തവാടി ആ സൈഡിൽ എല്ലാം പോയി പോകാനും താമസിക്കാനും പിന്നെ മെയിനായിട്ടുള്ള നല്ല കാലാവസ്ഥയും എല്ലാം കൂടി ചേർന്ന ഒരു ഇടമാണ് മൂന്നാർ മൂന്നാറിലും പോയി ആസ്വദിക്കാനുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് കടൽ തീരത്തു കടൽതീരത്താണ് പോയി കൂടുതലും തങ്ങാനും താമസിക്കാനും എൻജോയ് ചെയ്യാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് കടലിൽ ഇറങ്ങി കുളിക്കാനും ബാക്കി കാര്യങ്ങൾ കാണാനും തിരമാലകൾ ഒക്കെ അടിച്ച് വന്നു കയറുന്നതും മീൻ പിടുത്തക്കാരെ കാണാനും എല്ലാം നമുക്ക് സാധിക്കും സന്ധ്യസമയങ്ങളിൽ പോയിക്കഴിഞ്ഞാൽ നമുക്ക് കടലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ലൈറ്റ് ലൈറ്റുകളാണ് കാണുന്നത് പതിനായിരക്കണക്കിന് ലൈറ്റുകൾ കണ്ണ് എണ്ണിയാൽ തീരാത്ത രീതിയിലുള്ള ലൈറ്റിങ്ങ്സ് കാണാം എല്ലാം മീൻപിടുത്തക്കാർ പോകുന്നതാണ് പാവങ്ങൾ അവർ മീൻപിടിച്ചിട്ട് രാത്രി മൊത്തം വലയിട്ട് മീൻപിടിച്ച് അല്ലേൽ ചൂണ്ട ഇട്ട് പിടിച്ച് കരയ്ക്ക് കൊണ്ടു വരും അങ്ങനെ കൊണ്ടു വന്നാണ് അതുങ്ങടെ ജീവിതവും നമുക്ക് നല്ല മൽസ്യം കിട്ടുന്നതും അങ്ങനെയാണ് അപ്പം ആ ഏരിയയിൽ രാത്രി കാലങ്ങളിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം കാണുകയും എടുക്കുകയും ചെയ്യാം കൂടാതെ അത് കടൽതീരം അതു കഴിഞ്ഞിട്ട് മൂന്നാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഒന്നാമത് മൂന്നാർ കാലാവസ്ഥ വളരെ നല്ലതാണ് നമ്മൾ ഈ ശ്രീനഗർ ഞാൻ ഇപ്പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ശ്രീനഗറിൻ്റെ കാര്യം പറഞ്ഞു തണുപ്പിന് തണുപ്പും ചൂടിന് ചൂടും ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ പോയി കാണാനുള്ള സൗകര്യങ്ങളും എല്ലാമുണ്ട് പിന്നെ കുമരകം കുമരകത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും നല്ല ബോട്ടിങ്ങും റെസ്റ്റോറൻ്റും മെയിനായിട്ട് നമുക്ക് ഈ കാലങ്ങളിൽ വേണ്ടുന്നത് റെസ്റ്റോറൻ്റും കാര്യങ്ങളുമൊക്കെയാണ് എല്ലാ കാര്യങ്ങൾക്കും അവിടെ സൗകര്യമുണ്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം ആസ്വദിക്കാം ബോട്ടിങ്ങ് നടത്താം ബോട്ട് വേണമെങ്കിൽ റെൻ്റിന് കിട്ടും അത് മണിക്കൂറുകൾക്കോ അല്ലെങ്കിൽ

കായലാണ് മെയിനായിട്ടുള്ളത് പക്ഷെ കായൽ കണ്ടുകഴിഞ്ഞാൽ കടലാന്നെ പറയൂകയുള്ളൂ അത്രയ്ക്കും വീതിയുള്ള കായലുകളാണ് അങ്ങേക്കര കാണാത്തക്ക രീതീലുള്ള കായലുണ്ടവിടെ അപ്പോൾ അത് അതൊക്കെ കാണുമ്പം നമുക്കിഷ്ട്ടപ്പെടുമല്ലോ പിന്നെ കൊച്ചി മറൈൻ ഡ്രൈവ് കൊച്ചി മറൈൻ ഡ്രൈവിലെന്ന് വച്ചു കഴിഞ്ഞാൽ അവിടേയും ഇത് തന്നെ വെള്ളത്തിൽ കളിയാണ് ഇഷ്ടം പോലെ ബോട്ടുകളും ബോട്ടിങ്ങും അതെല്ലാമുണ്ട് അപ്പോൾ അത് കണ്ട് ആസ്വദിക്കാൻ പറ്റും നമുക്ക് പിന്നേ വേറെ എന്ന് വച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പൊന്മുടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അത് ഹിൽ ഏരിയ ആണേ പൊന്മുടിക്ക് പോയി കഴിഞ്ഞാലും നല്ല ഹില്ലേരിയായിൽ കേറി പോകാനും അവിടെനിന്ന് ദൂരെ കാഴ്ച്ചകൾ കാണാനൊക്കെ വലിയ നല്ല രസമാണ് അപ്പം നമുക്ക് അവിടെ വേണമെങ്കിലും പോയി കാണാം അപ്പം കേരളത്തിൽ ഒരു ടൂറിസ്റ്റ് വന്നിട്ട് തിരിച്ച് പോയി കഴിയുമ്പോൾ അവർ ചിന്തിക്കും രണ്ടാമത് പിന്നേയും അവിടെ അങ്ങനെ ഉള്ള സ്ഥലമാണ് നമ്മുടെ കേരളം അത് കാരണം നിങ്ങൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ എല്ലാം ചിന്തിച്ച് നോക്കുക നമുക്ക് അവിടെ എല്ലാം പോയി കറങ്ങി ആസ്വദിച്ചിട്ട് വരാം ഓക്കെ